നമ്മുടെ ഉത്തരേന്ത്യയിലായാലും ദക്ഷിണേന്ത്യയായാലും നമ്മുടെ ഭാഷയായാലും ഭക്ഷണം ആയാലും എല്ലാത്തിനും നല്ല മാറ്റമുണ്ട് പിന്നെ ഭാഷയായാലും നമുക്ക് ഉത്തരേന്ത്യയിലെ ഭാഷയല്ലായിരിക്കും ദക്ഷിണേന്ത്യയിലെ അതേപോലെ ഭക്ഷണം ആയാലും പല ഇതിലും മാറ്റങ്ങൾ ഉണ്ട് വസ്ത്രം ആയാലും അത് തന്നെ അവിടത്തെ വസ്ത്രരീതിയല്ല നമ്മുടെ കേരളത്തിന്റേത് അതിൽ നിന്നും ഭയങ്കരമായ മാ മാറ്റങ്ങൾ ഉണ്ട് അതേപോലെ കാലാവസ്ഥയയാലും കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മിതമായ കാലാവസ്ഥ ആയിരിക്കും തണുപ്പ് കാലാവസ്ഥ ഉണ്ടാവും അതേപോലെ വേനൽ കാലമുണ്ടാകും മഞ്ഞുകാലം ഉണ്ടാവും അതേപോലെ കാലാവസ്ഥ നല്ല മാറ്റങ്ങളുണ്ട് സാക്ഷരതയായാലും അതേപോലെതന്നെ അവിടുത്തെ സാക്ഷരത പോലെയല്ല വിദ്യാഭ്യാസം പോലെയല്ല നമ്മുടെ കേരളത്തിൻ്റെത് അതിലും നല്ല മാറ്റങ്ങളുണ്ടാവുന്നുണ്ട്